പറയു കാനറാ ബാങ്ക് ആയിരുന്നു ആരായിരുന്നു വിളിക്കുന്നത് ഓക്കെ എന്തിൻ്റെ ലോൺ ആയിരുന്നു വേണ്ടത് എന്താണ് തുടങ്ങുന്നത് കോഴി ഫാർമാണോ കുറെ സ്ഥലത്തുണ്ടോ കോഴി ഫാം തുടങ്ങുന്നത് ഒരു ഏക്കറാണോ എത്ര ലക്ഷം രൂപയാണ് ലോണ് പ്രതീക്ഷിക്കുന്നത് അത് സ്ഥലത്തിനനുസരിച്ചാണ് ഉള്ളത് ഒരേക്കറ് സ്ഥലം നിങ്ങളുടെ സ്വന്തമാണോ സ്വന്തമാണ് അപ്പോൾ ആധാരത്തിൻ്റെ ഒരു കോപ്പി പിന്നെ മുൻ മുന്നാധാരം വേണം പിന്നെ കരം അടച്ച രസീത് ഈ സാധനങ്ങളൊക്കെവേണം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ വരെ എങ്ങനെ പത്ത് ലക്ഷത്തിന്റ അടുത്താണ് കൊടുക്കുന്നത് അത് പിന്നെ ബാക്ഗ്രൗണ്ടൊക്കെ ഞാൻ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മള് അതിൽ കൂടുതൽ കൊടുക്കുകയുള്ളു ഗോൾഡ് ഒരു പവന് ഇപ്പോൾ ഇരുന്നൂറാണ് കൊടുക്കുന്നത് പുറമെ ഉള്ളത് അപേക്ഷിച്ച് നമ്മള് ബാക്കിയുള്ള ബാങ്കുകൾ അപേക്ഷിച്ച് നമ്മളാണ് എത്ര പവനുണ്ട് ബേ സ്വർണം എത്ര പവനുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും

പലിശ റേറ്റ് നാല് ശതമാനം പലിശ വാർഷിക വായ്പയാണ് നോക്കുന്നത് ബാങ്കിന്റെ അ നികുതി നികുതീന്റെ നികുതി ചീട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങള് വേണം അത് അല്ല അല്ല കാർഷിക ലോണണെങ്കിൽ നമുക്ക് വർഷമാണ് വരിക അപ്പോൾ അതാണ് കുറച്ചുംകൂടെ നിങ്ങൾക്ക് ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് വർഷം അടക്കുന്നതായിരിക്കും ബെറ്റർ അതാകുമ്പോൾ പലിശയും കുറവാണ് ആദ്യം സ്റ്റാർട്ട് നമ്മള് സ്റ്റാർട്ടിങ് നമ്മള് ഏഴ് ശതമാനാണ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ നാല് ശതമാനം നമ്മളെടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് മൂന്ന് പെർസെന്റജ് നിങ്ങൾക്ക് തന്നെ തിരിച്ച് റിട്ടേൺ ക്യാഷ് കയറും അങ്ങനെയാണ് സ്കീം ഉള്ളത് ഓക്കെ ബാങ്ക് അക്കൗണ്ട് എടുക്കണം വേണം എടുക്കണം എടുക്കണം ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി നാളെ രാവിലെ വന്നു കഴിഞ്ഞാല് ബാങ്ക് അക്കൗണ്ട് എടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് സ്വർണം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എമൗണ്ട് കിട്ടും ബാക്കി ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ വന്നാൽ ചെയ്യാം

അല്ല അല്ല ക്യാഷ് ആയിട്ട് തന്നെ തരിക നമ്മള് നിങ്ങൾക്ക് ഇനി ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് ആയിട്ട് ഇല്ലെങ്കില് അക്കൗണ്ടിൽക്ക് വേണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ഒക്കെ നാളെ അപ്പം വന്നോ ഓക്കെ എങ്ങനെ ആണേലും കുഴപ്പമില്ല ഓക്കെ